മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ കൂടുതലായിട്ട് കിട്ടുന്ന മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അയലയുണ്ട് മത്തിയുണ്ട് ചൂത അതുപോലെത്തന്നെ കിളിമീൻ കരിമീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നത്തോലി അങ്ങനത്തെ കുറേ മീൻ കിട്ടാറുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ആവശ്യക്കാർ കൂടുതലുള്ള അതായതിപ്പോൾ റേറ്റിംഗ് കൂടുതലുള്ളതൊക്കെയാണെങ്കിലൊക്കെ ആവശ്യക്കാരും എല്ലാറ്റിനേക്കാളും മത്തിക്കാണ് കാരണം അത് മത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അതായത് നമുക്ക് വറുത്ത് കഴിച്ചാലും അതുപോലെത്തന്നെ കറിവെച്ച് കഴിച്ചാലും എല്ലാവർക്കും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാണ്ടൊന്നുമില്ല അപ്പോൾ അതിനാണ് ഭയങ്കര തിന്നാനൊക്കെ ആണെങ്കിലും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളതൊക്കെ അതാണ് അതുകൊണ്ടുതന്നെ അതിനു ഭയങ്കര ആൾക്കാർ കൂടുതലായിരിക്കും അതിനു ഭയങ്കര റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക ഇപ്പം മത്തി അന്വേഷിച്ച് ആൾക്കാർ പ്രത്യേകമായിട്ട് വരാറുണ്ട് അപ്പം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്തിയുടെയുള്ളിൽ മുട്ടയുണ്ടാകും അപ്പം അതൊക്കെ വറുത്ത് തിന്നും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പം അതൊക്കെ ഭയങ്കരൊരു സ്പെഷ്യലിറ്റി ആണ് അപ്പോൾ അതിന് ഭയങ്കര ആൾക്കാർ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഒരെണ്ണൂറ് രൂപയ്ക്കൊക്കെയാണത് കൊടുക്കാറ് ഒരിക്കലും അതിൻ്റെ റേറ്റ് കുറയാറില്ല എപ്പോഴും കൂടുക കൂടുതലാണ് ഇപ്പോൾ ഇന്ന് എണ്ണൂറാണ് ചിലപ്പോ നാളെ എണ്ണൂറ്റിപ്പത്ത് എണ്ണൂറ്റി ഇരുപതൊക്കെയാവും അപ്പോ അങ്ങനെ ഒരുപാട് ചെയ്ഞ്ച്സിണ്ടാവാറുണ്ട് അപ്പോൾ അതിനാണ് ഏറ്റവും എറ്റവും കൂടുതൽ ആൾക്കാർ വരാറുള്ളത് പിന്നെ അയല കിളിമീൻ കരിമീൻ അങ്ങനെത്തതിനൊക്കെ അത്യാവശ്യമൊരു അറുന്നൂറ് എഴുന്നൂറിനടുത്തൊക്കെയാണ് വരിക അതിനൊക്കെ റേറ്റ് കുറയാറുണ്ട് അപ്പോൾ അതാൾക്കാർ മേടിക്കില്ല അധികം മേടിക്കാറുമില്ല അപ്പോൾ ഇതിനൊക്കെയാണ് എറ്റവും കൂടുതൾ ആൾക്കാരുള്ളത്